ഓ ഞാൻ പ്രായപൂർത്തിയായതിനു ശേഷം ഞാന് നീന്തല് ശൈലികൾ പഠിച്ചിട്ടുണ്ട് ഞാൻ എന്റെ പതിനെട്ടാം വയസ്സിലാണ് ഡൈം അടിക്കാനായി പഠിച്ചത് അത് ഞാൻ ഞാന് തോട്ടിൽ എന്റെ കൂട്ടുകാരന്മാരായി നീന്താൻ വേണ്ടി പോയപ്പോൾഎന്നെ നീന്തൽ പഠിപ്പിച്ച ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടന് എന്റെ അടുത്തു പറഞ്ഞു ഡൈമ് നമുക്ക് ഇപ്പോഴേ പഠിക്കണ്ട എന്നു പറഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആ ചേട്ടന് കയറി ഗള്ഫിൽ പോയി അപ്പോൾ നീന്തലിൽ പുതിയ ശൈലി എനിക്ക് പഠിക്കാന് പറ്റി അങ്ങെനിക്ക് നീന്തല് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന് പോകും പഠിക്കുവായിരുന്നു പിന്നെ ആ ചേട്ടന് വന്നതിനു ശേഷം നമ്മൾ ആദ്യമായിട്ട് പിന്നെ പോയത് എനിക്ക് പതിനെട്ടു വയസ്സുള്ളപ്പോഴാണ് അപ്പോൾ പോയ സമയത്ത് ആ ചേട്ടന് പറഞ്ഞു ഡൈമടിക്കാന് പഠിക്കാം എന്നു പറഞ്ഞു നമ്മള് അങ്ങനെ പഠിച്ചത് അങ്ങനെ ഒരു രണ്ടുമൂന്നു പ്രാവശ്യം കൊണ്ട് ഡൈമടിക്കാന് പഠിച്ചു അത് ഒരുപാട് വന്നു നല്ല രസമുണ്ടായി ഡൈമടിച്ചു കളിക്കാൻ അത് ഇപ്പോൾ തന്നെ നീന്തൽ എന്നു പറഞ്ഞ കാര്യത്തില് ഒരുപാട് ശൈലികള് പഠിക്കാന് ഇനിയും ഉണ്ട് എന്ന് എനിക്കറിയാം ഞാന് കുറച്ച് എനിക്ക് കുറച്ചു മാത്രമേ അറിയാവൂ എന്നാല് പോലും പലര്ക്കും എന്റെ കൂടെ നീന്താന് വരുന്ന പലര്ക്കും പലതരത്തിലുള്ള ശൈലികള് അറിയാം പിന്നെ ഞാന് വെള്ളത്തിന്റെ അടിയിൽ കൂടി കൈ പൊക്കി വെച്ചു നീന്താനായിട്ട് ഞാന് ഇപ്പോഴാണ് പഠിച്ചത് ഇതിന്റെ ഈ സമയത്ത് ഇപ്പം പത്തൊൻപതാം വയസ്സിലാണ് ഞാന് പഠിച്ചത് കൈ പൊക്കി വെച്ചു വെള്ളത്തിന്റെ അടിയിൽ കൂടി നീന്തിപോകാനുള്ളത് അതുപോലെ തന്നെ പല ശൈലികളും ഉണ്ട് ഇപ്പോൾ ഇനിയും പഠിക്കാനിരിക്കുവാ അത് ഇനിയും അത് ഓരോ ആരെങ്കിലും ഒക്കെ പറയുന്ന രീതി ഞാന് പഠി പഠിക്കും എന്നാണ് എനിക്ക് എന്റെ ഒരിത് അഭിപ്രായം പിന്നെ നമ്മൾ നീന്തൽ പഠിച്ചു തുടങ്ങികഴിഞ്ഞാൽ ഒരുപാട് ഇത്തരത്തിലുള്ള ശൈലികളും നമുക്ക് തന്നെ ഓരോ ശൈലികള് നമുക്കു തന്നെ ഉണ്ടാക്കാന് കഴിയും എന്നു പറഞ്ഞാല് കമഴ്ന്നും കിടന്നും നീന്തിയും നമ്മൾ നീന്താന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ശൈലിയിലും നമുക്ക് നീന്താന് കഴിയും

നീന്തല് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശൈലികളുണ്ട് ഇനി ഞാന് കുറേ ശൈലികള് പഠിക്കാനുണ്ട് എനിക്ക് എനിക്കറിയാവുന്ന വെറും കുറച്ചു മാത്രമാണ് വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിയിരിക്കുന്ന ഇത് നാലഞ്ചു പ്രാവശ്യം മുങ്ങിയിരിക്കുന്ന മുങ്ങിയിരുന്നു ചെയ്യുന്ന നാലഞ്ച് ശൈലികളും പിന്നേ പല കറങ്ങി ചാടാന് മറിഞ്ഞു ചാടാന് അങ്ങനെയുള്ള പല കാര്യങ്ങള് മാത്രമാണ് എനിക്ക് അറിയാവുന്നത് പിന്നെ കുറേ തരത്തിൽ ഇനിയുമുണ്ട് ശൈലികള് എനിക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് അറിയാവുന്ന ശൈലികള് ഞാൻ ഞാന് ഇപ്പോഴാണ് രണ്ട് ശൈലികളാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ഇനിയും പഠിക്കുമായിരിക്കും ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഇനിയും പഠിക്കുമെന്ന ഈ ഈ അപ്പം ഞാന് ഞാൻ ഈ ശൈലി മുൻപേ പ്രായപൂര്ത്തിയായപ്പോള് ഞാന് അപേ അപേക്ഷിച്ചു ശൈലികള് വീണ്ടും പഠിച്ചിട്ടുണ്ട്